ഞങ്ങൾ ഞങ്ങളുടെ ആരോഗ്യമേഖല വളരെയധികം മെച്ചപ്പെട്ടതാണ് നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളുടെ ആരോഗ്യം വളരെ നല്ലതാണ് കാരണം ഞങ്ങളുടെ ഭാഗത്ത് അധികം പൊല്യൂഷൻ ഒന്നുമില്ലാത്തതു കൊണ്ട് തന്നെ നല്ല ശുദ്ധവായു ഞങ്ങൾക്ക് ലഭ്യമാണ് മാത്രമല്ല ഞങ്ങളുടെ പ്രദേശത്ത് നല്ല ആ സാമൂഹ്യ ആരോഗ്യകേന്ദ്രമുണ്ട് നല്ല ചികിത്സാരീതിയും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ ഒരു ആശുപത്രിയാണ് ഞങ്ങളുടെ അടുത്തുള്ളത് അതുകൊണ്ടുതന്നെ എല്ലാം ആരോഗ്യപ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് ഈ സാമൂഹ്യ ആരോഗ്യകേന്ദ്രത്തിൽ പ്രവേശിക്കാനും പോകാനും സാധിക്കും അവിടെ നല്ല ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ടും എല്ലാത്തിനും സ്പെഷലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർമാരാണ് ചികിത്സിക്കുന്നത് കൂടാതെ ആദ്യകാലത്ത് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നില്ല ഈ കുറച്ചു വർഷങ്ങളായിട്ട് കിടത്തി ചികിത്സയും രാത്രി വരെ രോഗികളെ പരിശോധിക്കുന്ന രീതിയും തുടർന്ന് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടണത്തിലേക്ക് പോകുവാൻ താൽപര്യമില്ല